എനിക്ക് ഏറ്റവും കൂടുതൽ കളിക്കാനിഷ്ടം ഉള്ളതെന്നു പറയുന്നത് ഫുട്ബോളാണ് നമ്മളിപ്പോൾ പല കാരണം നമ്മളിപ്പോൾ പല ടെൻഷനിലായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പ്രെഷർ ഉണ്ടാവും നമ്മള് വീട്ടിലിരിക്കുമ്പോൾ ഓവർ തിങ്കിങ്ങും അതേപോലുള്ള ഒരുപാട് ടെൻഷനും പ്രെഷറൊക്കെ നമുക്ക് ഒരു മനുഷ്യനെന്ന നിലയിൽ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കിപിപിഒ വീട്ടില് കുറെ നേരം ഇരിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ വർക്ക് ടൈം വർക്ക് ടൈം ആണെങ്കിൽ വർക്ക് കഴിഞ്ഞു വന്ന് ആകെ ടയേർഡ് ആയിരിക്കും പ്രെഷറായിരിക്കും കൂടുതലും വർക്ക് ഓഫീസ് വർക്ക് കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറ് ഫുട്ബോളോക്കെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ വലിയ മാറ്റമാണ് അത് എനിക്ക് അനുഭവപെട്ടിട്ടുള്ള ഒന്നാണ് കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് എല്ലാം മറന്ന് അതിൽ ലയിക്കുകയാണ് കുറച്ച് നേരം തമാശയും അതേപോലെ തമ്മിൽ തമ്മിൽ പോരാടും അങ്ങടും ഇങ്ങടും വെല്ലിവിളികളും അങ്ങനെ വളരെ നല്ല ഒരു ഫീലാണ് നമുക്ക് എല്ലാം മറന്നു കളിക്കാനും ആ പ്രെഷറും ഓഫീസ് വർക്കും ടെൻഷനും എല്ലാം നമുക്കാ ഒരു ടൈമിൽ മറക്കാൻ പറ്റും അത് വളരെ പ്രധാനപെട്ടതാണ് നമുക്ക് വേറെ എന്തും കാണാനും സിനിമ കാണാൻ ആണെങ്കിലും അല്ലെങ്കിൽ അതോ അതിലൊന്നും കിട്ടാത്ത ഒന്നാണ് പിന്നെ കളിക്കാൻ പോകുമ്പോ അതും എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടാണ് അത് ഇപ്പോൾ അതും നമുക്ക് കളിച്ചോണ്ടിരിക്കാൻ എനിക്ക് ഫോർവേഡ് ആണ് കൂടുതൽ ഇഷ്ടം നമുക്ക് ആ വിങ്ങിൽ ഇങ്ങനെ കളിക്കാൻ ആ വിങ്ങിൽ ആ വിങ് മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി കൂടെ തന്നെ കളിക്കാനും അതേപോലെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പാസ്സ് ഗോളടിക്കുമ്പഴും നമുക്ക് കിട്ടുന്ന പാസിൽ ഗോളടിക്കുമ്പോഴും അതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയൊരു അപ്പ്രിസിയേഷനും ആ ടൈമില് ആ ടൈമിനു വേണ്ടി കാത്തിരിക്കും എപ്പഴും ഫുട്ബോൾ കളിക്കാൻ ആ ഒരു സമയാവാൻ ഒരു നാലര അഞ്ചുമണിയൊക്കെ ആവേ വെയ്ലാറണ സമയം അത് വളരെ റിലാക്സേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞു വീടെത്തുമ്പോ നമുക്ക് ഭയങ്കര ടയേർഡ് ആയിരിക്കും അതും കഴിഞ്ഞ് നമ്മള് ഈ ഒരു മണിക്കൂർ നമ്മള് എല്ലാം മറന്ന് കളിക്കുവായിരിക്കും അത് കഴിഞ്ഞു നമ്മള് വീടെത്തുമ്പോൾ ഭയങ്കര ടയേർഡായിരിക്കും നമ്മള് അല്ലെങ്കിൽ നമ്മള് രാത്രിയൊക്കെ കളിക്കാനൊന്നും പോകില്ല വീട്ടിലൊക്കെ ഇരിക്കയാണെങ്കിൽ ഉറക്കം വരാണ്ട് ഭയങ്കര പ്രെഷറൈസ്ഡാവും അതേ സമയത്താകുമ്പോൾ കളിച്ചിട്ടൊക്കെ വീട്ടിൽ എത്തി പറഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും പക്ഷെ ഫുഡ് കഴിക്കും കുളി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്ന് കിടന്നാൽ നല്ല സുഖമായി ഉറങ്ങാൻ പറ്റും നമക്ക് അതൊക്കെ ഭയങ്കര ഫീലാണ് കിടന്ന് നല്ല രീതിക്ക് ഉറങ്ങാൻ പറ്റും മൈൻഡ് ഫ്രഷായിട്ട് നമുക്ക് നല്ല രീതിക്ക് രാവിലെ എണീക്കാനൊക്കെ അത് വളരെ ഉപകാരപ്പെടും നമ്മള് എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്